ഹലോ ആ ഹലോ ജോയിച്ചേട്ടനാണോ

എന്താണ് ജോയിച്ചേട്ടാ വിശേഷം

ആ വില ഇപ്പം കൂടുന്നുണ്ട് വില ഇപ്പം അടിക്കടി കൂടിക്കൊണ്ടേ കോവിഡിന് ശേഷം അല്പ്പം കൂടി കൊണ്ടിരിക്കുകയാണ് അല്പ്പം അല്ല നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്താണ് ജോയിച്ചേട്ടാ പാദസരം മാറണമല്ലെ ആ ഇപ്പോൾ നമുക്ക് ഇത്തിരി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ ഓണമായിട്ട് നമുക്ക് അതിന് ചില ഓഫറുകൾ നമുക്കുണ്ട് നമുക്ക് ഇപ്പം എന്താ ഏ നമുക്ക് അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു മാസത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ജോയിച്ചേട്ടൻ എന്നാണ് വരുന്നത് അത് അനുസരിച്ച് നമുക്ക് ഏ കടയിൽ നമുക്ക് നല്ല ഐറ്റംസുകൾ വരുന്നുണ്ട്

പുതിയ ഡിസൈൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നേ ജോയിച്ചേട്ടാ അതിന്റെ ഒക്കെ പുതിയ ഡിസൈൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞാൽ പാദസരത്തിൽ വരുമ്പം നമുക്ക് പണിക്കൂലീയുടെ വിഷയങ്ങൾ ഉണ്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നത് ആകുമ്പം പണിക്കൂലി നമ്മള്ക്ക് കൂടി വരും നമ്മളിപ്പം ഏതാണ്ട് ആ അഞ്ച് ശതമാനം ഏഴ് ശതമാനം വരെ നമ്മൾ പനിയ് പണിക്കൂലി വാങ്ങിക്കുന്നുണ്ട് പിന്നെ മാറാന് വല്ലതും ഉണ്ടോ നമുക്ക് ഓ മാറി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ പിന്നെന്താണ് ആ അത് നമുക്ക് മാറാം അതിൻ്റെ അകത്തു കുഴപ്പമില്ല നമുക്ക് ഇപ്പം ഈ നയന് വണ് സിക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു കൂടുതൽ കുറവ് വരുന്നില്ല മറ്റത് പഴയ നമുക്കാണെങ്കിൽ ഇരുപത്തി രണ്ട് ക്യാരറ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു നമുക്ക് കുറവ് വരും അതും പത്തിലൊന്ന് നമ്മൾ കുറയും ആ നയന് വണ് സിക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു നമുക്ക് കുറവ് വരുന്നില്ല നമുക്ക് അതിൻ്റെ അകത്തു ഒരു മ പവനെടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു ചെറിയ മാര്ജിന് നമുക്ക് അതിൻ്റെ അകത്തു വരുന്നുള്ളൂ നമുക്ക് കുറവ് വരില്ല അത് അതിടാം അതിടാം നമുക്ക്

ആ ജോയിച്ചേട്ടാ നമുക്ക് തൃശൂരിൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം കുറേ ഡിസൈനും ആയിട്ട് ഒരു പാര്ട്ടി വരുന്നുണ്ട് നമുക്ക് എല്ലാ ബുധനാഴ്ചയും നമുക്ക് തൃശൂരിൽ നിന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഏറ്റവും നല്ലയിനം നല്ല മോഡൽ ഉണ്ട് മോഡൽ ഉണ്ട് നമുക്ക് സിംഗപ്പൂരിന്റെ ഉണ്ട് നമുക്ക് മലേഷ്യ അപ്പം ആ അതിൻ്റെ അകത്തു ഡിസൈന് നോക്കിയിട്ട് ഞാന് ജോയിച്ചേട്ടനയച്ച് തരാം മ്മ് അപ്പം ജോയിച്ചേട്ടന് അത് അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ പിന്നെ കടയിൽ വന്ന് സെലക്ഷന് നടത്തിയാൽ മതി നിങ്ങൾ വീട്ടിലിരുന്ന് ആലോചിക്ക് ഏ പിള്ളേരെ ഒക്കെ അത് കാണിച്ച് കൊടുക്ക് ആ ഉവ്വ ഉവ്വ തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും ജോയിച്ചേട്ടന് അങ്ങനെ വരണം ജോയിച്ചേട്ടന് അറിയാവുന്നവരോട് പറയണം കാരണം തീര്ച്ചയായിട്ടും നമ്മളെ ഒരു മാസത്തേക്ക് നമുക്ക് ഓഫർ ഉണ്ടെന്നും അതുപോലെതന്നെ ജോയിച്ചേട്ടന് അറിയാവുന്നവരോട് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വേണ്ട രീതിയിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പണിക്കൂലി നമുക്ക് അഡ്ജസ്റ്റ് നമ്മൾ കൊടുക്കാം ഇപ്പം നമ്മൾ ഏഴ് ശതമാനം എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമുക്ക് വരുമ്പം നമുക്കതിലൊക്കെ താഴെ വരും ഏ ഓക്കെ ആ ആ ഉവ്വ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് നേരത്തെ ഒക്കെ ആള്ക്കാർ കുറേ പൈസയൊക്കെ നമ്മൾ സ്റ്റോക്കെയ്യാരുന്നു അന്നേരം ആകുമ്പം പൈസ ആയിട്ട് അങ്ങനെ നമുക്ക് സ്വര്ണ്ണത്തിന്റെ വില കൂടുംബം കൂടാതിരിക്കാന് നമ്മൾ തരുന്ന അന്നത്തെ വില വെച്ച് നമ്മൾ കൊടുക്കുവായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ നമ്മൾ അങ്ങനെ പിടിക്കുന്നില്ല കാരണം അങ്ങനെ പിടിക്കുമ്പം നമുക്ക് എങ്ങും എത്തില്ലാത്തൊരവസ്ഥ വരികയാണ് ഏ അപ്പോൾ ആ അതുകൊണ്ട് ജോയിച്ചേട്ടന് ഒരു കാര്യം ചെയ്യു അത് എപ്പോഴാണ് എന്ന് വെച്ചാൽ വന്നിട്ട് വന്നിട്ട് നോക്കാം ഏ കേട്ടോ ശരി

ഓഫർ ചെയ്യാം അത് അത് വന്ന് വന്ന് കഴിയുമ്പം നമുക്ക് സാധനങ്ങളുടെ ഇടാം ഞാൻ ഏതായാലും ബുധാനാഴ്ച സാധനം വരുന്നുണ്ട് അപ്പം ധൈര്യമയിട്ട് വന്നേര് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചീനേയും കൂട്ടി വാ ഒരു ദിവസം അങ്ങോട്ട് വാ കേട്ടോ എന്നാൽ ശരി എന്നാൽ ഓക്കെ ശരി എന്നാൽ